നാമെല്ലാവരിപ്പോൾ ആരോഗ്യത്തിന് വളരേ അധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള വിഷയം യോഗ എല്ലാ വയസ്സിലുള്ളവർക്കും ഉപയോഗിക്കാം അല്ലെങ്കിൽ അത് ചെയ്യാം അത് സാദ്ധ്യമാണോ എൻ്റെ അഭിപ്രായമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം യോഗ എന്നിടത്തോളം എനിക്കറിയാവുന്നത് പറയാം യോഗ എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ അധികം നല്ല രീതിയിൽ നമ്മെ സഹായിക്കുന്ന ഒരു തരത്തിലുള്ള കലയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏറ്റവും നല്ല കലകളിൽ ഒന്നാണ് യോഗ എന്നും ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ആരോഗ്യപരമായി നമ്മളുടെ ജീവിത ശൈലി കൊണ്ട് ഒരുപാട് അസുഖങ്ങൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ഉറങ്ങുന്ന സമയം നമ്മളെണീക്കുന്ന സമയം നമ്മൾ നടത്തം നമ്മളുടെ നീക്കങ്ങൾ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ അസുഖങ്ങൾ വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് നാം ശ്വസിക്കുന്ന വായു ഇത്തരത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഒരുപാട് ജീവിതത്തിലെ ഒരുപാട് വശങ്ങൾ കിടക്കുന്നുണ്ട് കാരണം ഇത്രയും ചെറിയ കാര്യങ്ങൾ കൊണ്ട് അസുഖങ്ങൾ വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാമിപ്പോൾ ജീവിച്ച് കൊണ്ടിരിക്കുന്നത് എന്നറിയാൻ വളരേ അധികം സങ്കടമുണ്ട് നമുക്ക് പക്ഷേ അത് നമ്മളുടെ തന്നെ മരം വെട്ടിക്കളയൽ പോലെയുള്ള നമ്മളുടെ തന്നെ പ്രയ പ്രവർത്തികൾ കൊണ്ടാകാം ഇത്തരത്തിൽ നമ്മളുടെ അനുഭവിക്കുന്നത് എന്നുള്ളത് വേറെ ഒരു കാര്യം പക്ഷേ എല്ലാവരും അങ്ങനെ ചെയ്യുന്നില്ലല്ലോ പക്ഷേ ചെയ്യുന്നവർ കാരണം എല്ലാവരും അനുഭവിക്കുകയാണ് അതൊക്കെ വേറെ കാര്യങ്ങൾ ഇപ്പം യോഗ എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിനെയും ശരീരത്തേയും ഒരു പോലെ സമാധാനിപ്പിച്ച് നമ്മളുടെ മനസ്സിലെ എല്ലാ വിഷമങ്ങളെയും ബുദ്ധിമുട്ടുകളെയും മാറ്റി നല്ല ഒരു സന്തോഷകരമായ ജീവിതം തുടരാനും ആത്മീയമായി ദൈവ വിശ്വാസം കൂടാനും അതുപോലെ നമ്മളെന്ത് ചെയ്യുകയാണെങ്കിലും അതിൽ ശ്രദ്ധ കൂടാനുമൊക്കെ നമ്മെ ഒരുപാട് ഒരുപാടൊരുപാട് സഹായിക്കുന്ന ഒരു കലയാണ് യോഗ യോഗ എന്ന് പറയുമ്പോൾ കുട്ടികൾ യോഗ ചെയ്യുന്നുണ്ട് മിത മിതത്വ വയസ്സിലുള്ളവർ യോഗ ചെയ്യുന്നുണ്ട് നല്ല പ്രായമുള്ളവർ യോഗ ചെയ്യുന്നുണ്ട് അപ്പോൾ യോഗ എന്ന് പറയുമ്പോൾ ഏത് പ്രായത്തിലും ചെയ്യാവുന്ന ഒരു വസ്തുവാണ് എന്നാൽ നാമെന്ന് ചെയ്യുന്നുവോ അന്നു തൊട്ട് നമ്മളത് സ്ഥിരമായി ചെയ്യണം ഞാൻ കഴിഞ്ഞ കൊല്ലം ഇരുപത്തി രണ്ടാന്തി യോഗ ചെയ്തു അതുകൊണ്ടെൻ്റെ ജീവിതത്തിൽ ഒരു സമാധാനമൊക്കെയുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണമെന്താണ് യോഗ എന്ന് പറയുന്നത് ഒരു ദിവസം ചെയ്തതു കൊണ്ട് മാറ്റം വരുന്നതല്ല മറിച്ച് എല്ലാം ദിവസവും ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനെ തന്നെ മാറ്റി മറിക്കാൻ നമ്മെ സഹായിക്കാവുന്ന ഒന്നാണ് യോഗ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് യോഗയിൽ എനിക്ക് വേറെ ഒരു കാര്യം വളരെ അധികം ശ്രദ്ധയിൽ പെട്ടിട്ടുള്ളതാണ് അതിലെ ഓരോ നീക്കങ്ങൾ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ സൂര്യനമസ്ക്കാരം പോലെയുള്ള നീക്കങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഭൂമിയിലുള്ള ഓരോന്നിനെയും നമിക്കുകയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ഭാഗ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുള്ളതെല്ലാം നമ്മൾ നമിച്ച് കൊണ്ട് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് നമ്മളിവിടെ കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് യോഗ വളരേ അധികം നമ്മളുടെ മനസ്സിനെയും ശരീരത്തിനെയും വളരേയധികം സ്വാധീനിക്കുന്ന കലകളിലൊന്നാണ് എന്ന് പറയാൻ എനിക്കൊരു ഒരു വിഷമവുമില്ല കാരണം അത് സത്യമാണ് അത് യാഥാർത്ഥ്യമാണ് യോഗയെ സംബന്ധടി സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ജീവിത കാലത്തിൽ നമുക്ക് കൂടെ കൊണ്ട് പോകാൻ പറ്റിയ ഒരു വളരെ നല്ല കലയാണ് കാരണം നമുക്കൊരുപാട് സമയം കിട്ടണം എന്നില്ല നമുക്ക് വ്യായാമത്തിനായി മാറ്റി വെക്കാൻ ഒരുപാട് സമയം വേണമെന്നില്ല എന്നാലും ഒരു ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ളൊരു വ്യായാമം ചെയ്യുന്നതാണ് നമ്മളുടെ ആരോഗ്യത്തിനും അധിക ആയുസ്സിനും നല്ലത് എന്ന് അറിയുന്നൊരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ നല്ലൊരായുസ്സ് ഉണ്ടാകാനും കൂടുതൽ കാലം ജീവിക്കാനും വേണ്ടി നമ്മൾ പ്രത്യേകമായി ചെയ്യേണ്ടതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ടുള്ള ദിവസങ്ങളുടെ വ്യായാമം മുറപ്രകാരം നിർവ്വഹിക്കുക എന്നതാണ് അതിന് വ്യായാമം ചെയ്യുമ്പോൾ ഒരു പക്ഷെ നമുക്കൊരുപാട് വ്യായാമങ്ങൾ ചെയ്യാനുള്ള സമയമോ അതിനു പറ്റിയ ഇതോ ഉണ്ടാകണം എന്നില്ല അതുകൊണ്ടാണ് ഞാൻ യോഗ നിങ്ങളൊക്കെ നൽകുന്നത് യോഗ വളരേ നല്ല ഒരു കലയാണ് അത് ജീവിതത്തിലെല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു കലയാണ്